ഞങ്ങളുടെ പ്രദേശത്ത് ഏറ്റോം ആദായം ഉണ്ടാക്കുന്ന വിളകളെതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനമായിട്ടും ഏലമാണ് ഏലക്കൃഷിയാണ് പ്രധാനമായിട്ടും ഞങ്ങളുടെ ഇവിടെയുള്ളത് അത് എന്താന്ന് ചോദിച്ചാൽ ഏ ഏ ഏലക്കാന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നെ ആദായം ഉള്ള ഒരു സാധനമാണ് ഏത് കാലാവസ്ഥയിലും അതിന് വിലയിടിവും അല്ലെങ്കിൽ അത് ഉണ്ടാകാതെ ഒന്നും ഇരിക്കുന്നില്ല നല്ല വിലയും ഉണ്ട് അത് എപ്പോഴും ഉണ്ടും താനും ഇപ്പം റബ്ബറക്കേന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അങ്ങനെ വെട്ടാൻ പറ്റിയേലല്ലോ പക്ഷേ ഏലംന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എല്ലാ മാസവും നമുക്ക് ഏലക്കാ പറിക്കാം നമ്മളിപ്പം നനച്ചക്കെ കൊടുത്താൽ എല്ലാ മാസോം തന്നെ നമുക്ക് ഏലക്കാ പറിക്കാൻപറ്റും അതിപ്പോൾ പച്ചയായിട്ട് വേണമെങ്കിൽ പച്ചയായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒണക്കീട്ട് വേണമെങ്കിൽ ഉണക്കി കൊടുക്കാം എങ്ങനെയാണേലും ഞങ്ങളുടെ പ്രദേശത്തൊക്കെ ഏലക്കയാണ് മെയിൻ ആദായം ഏല കൃഷിയാണ് മെയ്നായിട്ടുള്ളത് കൃഷിയും ഇപ്പം കൃഷിസ്ഥലങ്ങളിലൊക്കെ തന്നെ ഏലാണ് മെയ്നായിട്ട് ഉള്ളത് ഇപ്പം വേറൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ നമുക്കൊരുപാട് ആവശ്യങ്ങളും അല്ലെങ്കിൽ കയറ്റ് മതിയുള്ള സാധനമാണല്ലോ ഏലക്ക അതുകൊണ്ട് അതിന് ഡിമാൻറ്റും കൂടുതലാണ് അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലായിട്ട് ഏലക്കൃഷിയിലേക്ക് വരുന്നതും അല്ലേ ഇപ്പം തന്നെ ഇഞ്ചിച്ചായ അല്ലെങ്കിൽ ഏലക്കാച്ചായ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എല്ലാത്തിലും തന്നെ ഈ ഏലക്കാ ഇപ്പം നമ്മൾ ബിരിയാണി അല്ലേ മിക്കതിലും തന്നെ ഏലക്കാ ഒക്കെ ഉള്ളോണ്ട് നമ്മൾ ഏലക്കാ ഒരു ഇന്നും തന്നെ നമുക്ക് പണ്ട് തൊട്ട് തന്നെ അറിയാം ഏലക്കാ ഒരു എന്താ ഒരു പൈസ കിട്ടുന്നൊരു സാധനം തന്നെയാണ് എപ്പോഴും തന്നെ ഉള്ളൊരു ആദായം തന്നെയാണ് ഏലം